ഇന്നലെ ഞാൻ ബാങ്കിൽ വന്നായിരുന്നു കേട്ടോ ഇന്നലെ ബാങ്കിൽ വന്നു പന്ത്രണ്ട് മണിയായപ്പം ബാങ്കിൽ വന്നിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ഗൂഗിൾ പേ ഒരാൾക്ക് പൈസ ഇട്ടു കൊടുത്തു അഞ്ഞൂറ് രൂപ ഇട്ടു കൊടുത്തു പക്ഷേ അത് നമ്പര് മാറിപ്പോയെന്നാണ് തോന്നുന്നത് ആ പൈസ ഇനി എന്തോ ചെയ്യും കിട്ടുവോ അതൊ ബുക്കി എങ്ങോട്ടാ പോയതെന്ന് അറിയാൻ പറ്റുമോ ആളെ കണ്ടുപിടിക്കാൻ പറ്റുവോ ആ ഇട്ടുകൊടുത്തു പക്ഷേ അയാൾക്ക് ഞാൻ വിചാരിച്ച് ആൾക്ക് ചെന്നില്ല അപ്പോൾ ഇനി എന്തോ ചെയ്യാൻ പറ്റും ആ പാസ്ബുക്ക് കയ്യിലുണ്ട് ആ ആ ആ നോക്ക് നോക്ക് നോക്ക്

ഇന്നലെ ഇന്നലെ ഇന്നലെ ഇന്നലെ ഇന്നലെ ഇന്നലെ രണ്ടാം തീയതി ഇന്നലെ ഇന്നലെ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പം ആ പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ആ ആ നമുക്ക് അബദ്ധം പറ്റിയതാണ് ആ ആ അ ആ ആ ആ ഞാൻ ക ഞാൻ കംപ്ലൈൻ്റെ എഴുതി തരാൻ മേടം ഓക്കെ എന്നാൽ അ ആ ആ എന്നാൽ നന്ദി ആ ആ എന്നാൽ ആ എനിക്ക് വേറെ വേറൊരു അക്കൗണ്ടൊണ്ട് കേട്ടോ അതിനുടെ കുറച്ചു പൈസ ഇടണം ലിൻറ്റ് എടുക്കട്ടെ പൈസ ചെല്ലാനം പൂരിപ്പിക്കട്ടെ ആ ഇനി ഞാൻ ഗൂഗിൾ പേ വഴിയിടുന്നില്ല ഇടുന്നതിനിപ്പോൾ കയ്യിൽ പൈസയുണ്ട് തരാവെ

ആ എൻ്റെ അക്കൗണ്ട് നമ്പറൊന്ന് പറയട്ടെ ഞാൻ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് മുപ്പത്താറ് നാൽപ്പത്തി മൂന്ന് മുപ്പത്താറ് പതിനഞ്ച് പതിനഞ്ച് നാൽപ്പത്താറ് ഇരുപത്തിയെട്ട് ഈ അക്കൗണ്ടിലോട്ട് ഈ പതിനായിരം രൂപ ഇടണം ഈ അക്കൗണ്ടിന് വേറൊരു അക്കൗണ്ടിലോട്ട് കേട്ടോ സർവീസ് ചാർജ് സർവീസ് ചാർജ് വല്ലോതും പിടിക്കുവോ ഇന്ന് പൈസ ഇട്ടാൽ ഇന്നിപ്പോൾ തന്നെ ചെല്ലുവോ അതൊ നാളെ ചെല്ലത്തുള്ളോ അ അ ആ ആ ആ എന്നാൽ ആ എന്നാൽ ആ എങ്കിൽ എന്ന ഇപ്പോൾ ഇടണം ഇപ്പോൾ ഇടാൻ വേണ്ടിയായിരുന്നു ആ ഞാൻ പൈസ ഇപ്പോൾ തരാവെ ആ ടാങ്ക് യൂ ടാങ്ക് യൂ